സ്റ്റാമ്പ് നാണയം കല്ല് ഇവ തുടങ്ങിയവ നമ്മള് പണ്ട് തൊട്ടേ ശേഖരിച്ച് വയ്ക്കുകയാണെങ്കിൽ അത് നമ്മുടെ വിദ്യാഭ്യാസപരമായ മൂല്യം നമുക്ക് കൂട്ടത്തെ ഉള്ളു കാരണം പണ്ടുള്ള നാണയങ്ങളും സ്റ്റാമ്പുകളും അവയുടെ പ്രത്യേകതകളും അതിൽ നിന്ന് ഇപ്പോഴുള്ളവയിലേക്ക് വന്നപ്പോൾ ഉള്ള മാറ്റങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് വിശകലനം ചെയ്യാനും മറ്റുള്ളവർക്ക് പറഞ്ഞ് കൊടുക്കാനും സാധിക്കും കാരണം പണ്ടുള്ള നാണയങ്ങളോ സ്റ്റാമ്പുകളോ തുടങ്ങിയ കാര്യങ്ങളല്ല ഇപ്പോഴുള്ളത് അതിൽ നിന്ന് ഒരുപാട് വ്യത്യസമായിട്ടാണ് ഇപ്പം എല്ലാം കണ്ടു വരുന്നത് അതുകൊണ്ടുതന്നെ അത് നമ്മുടെ വിദ്യാഭ്യാസപരമായ ഒരുപാട് കാര്യങ്ങളില് വ്യത്യാസം വരുത്തുന്നുണ്ട് നമുക്ക് കൂടുതല് ചിന്തിക്കാനും നമുക്ക് കൂടുതലതിനെ അതിലേക്ക് ഇറങ്ങി അതിനെ മനസ്സിലാക്കാനും അത് നമ്മളെ സഹായിക്കും അതുപോലെ പണ്ടുള്ള നാണയങ്ങളെക്കുറിച്ച് പഠിക്കാനും തുടങ്ങി ഒരുപാട് കാര്യങ്ങള് നമ്മള് നമ്മളെ ഇത് സഹായിക്കും